ഇന്ന് നമ്മുടെ പ്രദേശത്ത് നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഭൂമി ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഭൂമി തരം തിരിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു അപേക്ഷ കൊടുത്താൽ അത് വില്ലേജ് എടുത്ത് അവരത് കൃഷിഭവനിലേക്ക് അയച്ച് പഞ്ചായത്ത് നോക്കി വില്ലേജ് നോക്കി ആ പേപ്പർ എല്ലാം നോക്കി കഴിഞ്ഞിട്ട് അത് കൃത്യത വരുത്തിയിട്ട് നമ്മൾക്ക് അതിനുള്ള തരം തിരിച്ചിട്ടുള്ള ഭൂമിയുടെ കടലാസ് കൈയ്യിൽ കിട്ടൂ ഉദാഹരണമായിട്ട് ഇപ്പോൾ കെ എൽ യുവിന്റെ നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് പഞ്ചായത്തിൽ പോയി അവിടെ നിന്ന് കൃഷിഭവനിൽ പോയി കൃഷിഭവനിലെ ഓഫീസർ നമ്മുടെ സ്ഥലം വന്നു നോക്കി അതിനുള്ള അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണോയെന്ന് നോക്കി ഇങ്ങനെയൊക്കെ ഒരുപാട് നൂലാമാലകൾ ഇതിന്റെ പുറകിൽ ഉണ്ട് ഇത് കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല എന്നു തന്നെയാണ് വലിയ ഒരു പ്രശ്നം ഇപ്പോൾ ഭൂമി തരം തിരിക്കാനൊക്കെ ഇപ്പോൾ പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കുന്നില്ല നമ്മൾ ഒരു അപേക്ഷ കൊടുത്താൽ അതിന്റെ പുറകെ മൂന്നും നാലും വർഷവും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ കെ എൽ യുവിനു വേണ്ടി നമ്മൾ ഒരു അപേക്ഷ കൊടുത്താൽ അത് അഞ്ചു ആറും വർഷം കഴിഞ്ഞിട്ടാണ് അത് നോക്കാനോ വേണ്ടിയിട്ട് വരുന്നത് ഇത് ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വില്ലേജിൽ നിന്നാണെങ്കിലും നമ്മൾ സ്ഥലം അളക്കാൻ വിളിച്ചാൽ ഓഫീസർ വരുന്നത് മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ടാണ് അതുപോലെതന്നെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം ഇതു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കയ്യിൽ എല്ലാ അപേക്ഷകളും എല്ലാ പേപ്പർ ഉണ്ടെങ്കിൽക്കൂടി ഇന്ന് നമ്മൾക്ക് ഈ ഭൂമി തരംതിരിവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുണ്ട് തണ്ടപ്പേരിൻ്റെ പ്രശ്നങ്ങൾ കെ എൽ യുവിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ പരിഹരിച്ചാൽ ഈ ഭൂമി ഇടപാടുമായിട്ടുള്ള ആളുകളുടെ പ്രശ്നം ഒരുവിധത്തിൽ കുറയ്ക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഒരു അപേക്ഷയുമായിട്ട് കെ എൽ യുയുടെ അപേക്ഷയുമായിട്ട് നമ്മളിപ്പോൾ കൃഷിഭവനിൽ പോവുകയാണെങ്കിൽ കൃഷി ഓഫീസർ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് വേണം ഇത് നമ്മൾക്ക് ലഭിക്കാൻ പക്ഷേ കൃഷി ഓഫീസർ അത് ഉപയോഗയോഗ്യമല്ല എന്നെല്ലാം പറഞ്ഞിട്ട് അതിനുള്ള അപേക്ഷ വാങ്ങി വെച്ച് നമ്മൾക്ക് അതിനുള്ളത് ചെയ്തു തരുന്നില്ല ഇത് കാലങ്ങളായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരിതാണ് നമ്മുടെ കയ്യിലെ അത് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽക്കൂടി അതിന് അവർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുന്നില്ല ഇത് വലിയ ഒരു പ്രശ്നമാണ്